നമ്മൾ ചെറുപ്പത്തിൽ കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഒരുപാട് കളിച്ചിരുന്ന കളിയാണ് ചട്ടി പന്തുകളി അത് എന്നു വെച്ചാൽ അതിൽ നമ്മൾ പരന്ന കുറേ കല്ലുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കും എന്നിട്ട് അത് രണ്ട് ടീം ആയിട്ടാണ് കളിക്കുന്നത് ഈ അടുക്കി വെച്ചിരിക്കുന്ന കല്ലിൽ ഒരു ടീം എറിഞ്ഞിടും എറിഞ്ഞിട്ടിട്ട് അവർ ഓടും അവർ ഓടുമ്പം അവരെ പിടിക്കാൻ മറ്റേ ടീമ്മാർ ഓടും എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ഈ എറിഞ്ഞിട്ട ആൾ ഓടുന്ന ഇടത്ത് ഇതിൽ ബാക്കിയുള്ള ഈ ഓപ്പോസിറ്റ് ടീമിലുള്ള ആൾക്കാർ വന്ന് ഇത് അടുക്കി വെക്കാൻ ശ്രമിക്കും ഈ ചട്ടി ഈ കല്ല് അടുക്കി അടുക്കി അടുക്കി വെക്കാൻ നോക്കും ഇത് മൊത്തം അടുക്കി വെച്ചാൽ അവർ ജയിക്കും അപ്പം അപ്പോഴും മറ്റു ടീമുകാർ ഇവർ അടുക്കി വെക്കുന്നത് അനുസരിച്ച് ഇത് എറിഞ്ഞ് ഇട്ടുകൊണ്ടേ ഇരിക്കും അത് വളരെ രസക്കാരമായിട്ട് ഒരു കളിയായിരുന്നു അത് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കളിച്ച കളിയാണ് അത്